ഗ്രാമ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താനായി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സ്കൂളുകൾ ഇനിയും വേണ്ടി വരും ഒരു ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാം ഒരു നാലോ നാലോ അഞ്ചോ സ്കൂളുകൾ വേണം പിന്നെ സ്കൂൾ ഗ്രാമപ്രദേശമാവുമ്പോൾ ബസ്സുകൾ വരാത്ത സ്ഥലങ്ങൾ കാണും പിന്നെ രാവിലെ ട്യൂഷൻ സ്കൂൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഉള്ള കുട്ടികൾ കാണും അപ്പോൾ അവർക്കൊക്കെ അവിടോട്ട് ബസ് സൗകര്യം റോഡ് പിന്നെ അവിടേക്ക് റോഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ റോഡൊക്കെ മോശമായി കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ അപ്പം അവിടത്തേക്ക് ഒക്കെ ബസ്സുകൾ ഓരോ സ്കൂളിൽ നിന്നും സ്കൂൾ ബസ്സുകൾ ഏർപ്പാടാക്കേണ്ടതുണ്ട് സർക്കാർ അത് പോലെ തന്നെ പല സ്കൂളുകളിലും ഇടിഞ്ഞിരിക്കുന്ന സ്ഥലം ഇടിഞ്ഞിരിക്കുന്ന സ്കൂളുകളും പൊളിഞ്ഞിരിക്കുന്ന സ്കൂളുകളും പിന്നെ ഓടിട്ട ഇപ്പോഴും ഓടിട്ട് ഉള്ള കെട്ടിടങ്ങളുണ്ട് അതൊക്കെ പൊട്ടാറായി ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ അവിടെയൊക്കെ സർക്കാർ ഒന്ന് വികസിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസം പിന്നെ ടെക്സ്റ്റുകളുടെ കാര്യം നോക്കുക ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുരോഗമനം പുരോഗമനം വേണമെന്ന് എൻ്റെ അഭിപ്രായം പിന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ ചോയ്സിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സബ്ജക്റ്റുകളൊന്ന് അറേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മതി മതിയാവും പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലോണം അറിയാവുന്ന ടീച്ചേഴ്സ് തന്നെ വേണം പഠിപ്പിക്കാൻ നല്ലോണം പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ള ടീച്ചേഴ്സിനെ മാത്രം ഏർപ്പാട് ആക്കാൻ സർക്കാർ നോക്കേണ്ടതാണ് ഇതൊക്കെ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താനായി സർക്കാർ ചെയ്യേണ്ടത്